ഇല്ലല്ലോ ഹലോ

ഹലോ ബാബു മാമൻ്റെ റേഷൻ കട അല്ലേ ആ വാപ്പ പറഞ്ഞിരുന്നു വിളിക്കാൻ ആ അത് ഇതെപോലെ വാപ്പ ചോദിക്കാൻ പറഞ്ഞിരുന്ന് ഈ മണ്ണെണ്ണയ്ക്കും മണ്ണെണ്ണയ്ക്ക് എത്ര രൂപയാവും അങ്ങനെ പഞ്ചസാര മണ്ണെണ്ണ ഉഴുന്ന് എത്ര രൂപ ആവുവന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു ആ മഞ്ഞ കാഡാ മഞ്ഞ കാഡ്

ഓ ഓ അപ്പം ഇതോ വേറെ ഒന്നും വേണ്ട ഈ മണ്ണെണ്ണേടെ കാര്യം പറഞ്ഞൊള്ള് വാപ്പ പിന്നെ മാമായൊന്ന് ചോദിച്ച് നോക്ക് വാപ്പാടടുത്ത് എന്തെങ്കിലും ഒക്കെ വിളിക്കുവാതി ആ എന്തൊക്കെ ഉണ്ട് വേറെ

ആ ആ ഗോതമ്പ് മാവിന് എത്ര രൂപ ആ ആ ആ അപ്പം ഈ ചമ്പാവരി വന്നിട്ടുണ്ടോ ആ ആ ആ എത്ര രൂപ ആ ആ ഓക്കെ അല്ലെങ്കിൽ ആ പെട്ടന്ന് വരാം പെട്ടന്ന് വരാം പെട്ടന്ന് വരാം പിന്നെ ഉമ്മ ഉമ്മ ചോദിക്കാൻ പറഞ്ഞിരുന്നു ഏ ആ ഉമ്മ ചോദിക്കാൻ പറഞ്ഞിരുന്നു റോസരി വന്നോന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു

അത് കുഴപ്പമില്ല എത്ര രൂപയാവും മുപ്പത്തി ഏയ് ഓ ഇപ്പം എന്ന് ഞാൻ വരണം ആ ആ ഓക്കെ ഓക്കെ ഒരു ഉച്ചക്കത്തെ തിരിഞ്ഞ് രണ്ട് മണി ഒക്കെ ആവുമ്പം ഞാൻ ഓക്കെ പിന്നെ വേറെന്തെക്കെയാണ് ഏ

ആ ഓ വരാം വരാം വരാം ഓ മണ്ണെണ്ണ ഇനി കുറച്ചല്ലെ ഒ കുറച്ചേ ഉള്ളു അല്ലെ അപ്പം ആ ഇപ്പം മണ്ണെണ്ണ വരക്കവില്ലെ അവിടെ ഇപ്പം വേറെ സ്റ്റാഫൊന്നും ഇല്ല റേഷൻ കടയിൽ ആണോ ആ ആ അവൻ തന്നല്ലെ പിന്നാ ഞാൻ ഇപ്പം പ്ലസ് ടു ആ ആ ഓയ് വെളിച്ചെണ്ണെ ഈ വെളിച്ചെണ്ണ പിന്നെ ഇത് പഞ്ചസാരയ്ക്ക് എത്രേന്നാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ അപ്പം പഞ്ചസാര ഇരുപത്തഞ്ച് രൂപയാണ് ആ അപ്പോൾ പഞ്ചസാരയും ഉഴുന്ന് ഉഴുന്നിൻ്റെ വിലയും കൂടൊന്ന് പറയുവോ ആ അപ്പോൾ പഞ്ചസാരേം ഉഴുന്നും മണ്ണെണ്ണേമ് വേണം അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ വരും ഇല്ലെങ്കിൽ വാപ്പ വരും ആ നമ്പരൊണ്ട് വാപ്പ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്റടുത്ത് പിന്നെ പറഞ്ഞ് എൻ്റെ എൻ്റട്ത്തൂടെ ഒന്നൂടൊന്ന് വിളിക്ക് എന്നിട്ടൊന്ന് നീ പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ കാണോ ഇല്ലയോന്ന് അറിയത്തില്ല അതോണ്ട് വാപ്പാട്ത്തൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിൽ പോയി മേടിക്കാൻ ആ ഉമ്മ പറഞ്ഞു ഏ സാധനം എടുത്ത് വെച്ചേരെ സാധനം എടുത്ത് വെച്ചേരെ ഓ കിറ്റ് വല്ലോം വന്നിട്ടുണ്ടോ

ആ അപ്പം ഓണത്തിന് ഓണാവാന്നേർത്ത് ഓണാവുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചേക്കണെ കിറ്റ് മേടിക്കാൻ വരാനായി

വരും വരും എല്ലാവർക്കും സുഖമാണ് മാമ അപ്പം മാ പഞ്ചസാര ഉഴുന്ന് എണ്ണ ഓയില് ആ ഓയില് വന്നിട്ടുണ്ടോ ആ അപ്പം അതും കൂടെ വേണെ യേട്ടാ എത്ര രൂപയാവും ആ ഓക്കെ ഓക്കെ അപ്പം അതും കൂടെ വേണായിരുന്നു കേട്ടോ ഓ എടുത്ത് വെച്ചേരെ ഞാൻ വരാം വരാം വരാം ഇന്നൊരു രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഓക്കെ ഓക്കെ ഓ ഓ അയക്കാം അത് അയച്ച് തരാം